ഞാനീ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഭക്ഷണത്തിനെ വില വെക്കുക ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കി കളയരുത് കാരണം ഞാൻ പഠിച്ചത് ഏറ്റവും ഇതുവരെ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ ഒരു കാര്യം ഇതാണ് ഭക്ഷണത്തിനെ ഒരിക്കലും നിന്ദിക്കരുത് കാരണം ഞാൻ പഠിച്ച ഒരനുഭവം ഇങ്ങനെയാണ് അതൊരു ഭക്ഷണത്തിനോട് ഞാൻ ആ ഒരു ഒരു ഇത് കാണിച്ചു അവഹേളനം കാണിച്ചു അതുകൊണ്ട് ഭക്ഷണം ഭക്ഷണം എനിക്ക് മൂന്ന് ദിവസം കിട്ടാതെ സാഹചര്യത്തിൽ എനിക്ക് വേറൊരു സ്ഥലം വരെ സ്വന്തം വീട് വിട്ടിട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു പക്ഷേ അവിടെ പോയപ്പോൾ ഭക്ഷണം അവിടെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ശരീരത്തിന് പറ്റാതെ ഒരുപാട് ശാരീരികമായുള്ള പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടായി നാലു ദിവസത്തോളം ഭക്ഷണം കഴിക്കാൻ പറ്റാതെയായിരുന്നു അതോ അന്ന് അത് മനസ്സിലാക്കിയതാണ് ഭക്ഷണത്തിൻ്റെ വില അതുതന്നെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏക കാര്യം അത് ഞാൻ ഇപ്പോഴും അത് കാത്ത് കൊള്ളുന്നുണ്ട് കാരണം ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കരുത് എന്ന് എല്ലാവരുടെയടുത്തും ഞാൻ പറയാറ് ഭക്ഷണം അതിപ്പോൾ ഞാനാണെങ്കിലും ഒരിക്കലും വേസ്റ്റാക്കാൻ ഞാൻ സമ്മതിക്കില്ല തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും ഞാൻ ഭക്ഷണം കഴിക്കും വേസ്റ്റ് വരുന്ന ഭക്ഷണം കഴിക്കും ബാക്കി ഒരു ശതമാനമൊക്കെത്തന്നെ എനിക്ക് പറ്റുന്നില്ല എന്ന കാരണം കൊണ്ട് ഒഴിവാക്കുന്നത് അത് ഞാൻ മറ്റുള്ളവരടുത്തും പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം അതാണ് ഒരിക്കലും ഭക്ഷണത്തെ അവഹേളിക്കാനോ ഭക്ഷണം കഴിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനെ ബഹുമാനിക്കാതിരിക്കാനോ പാടില്ലായെന്ന്